കോഴി വളര്ത്തല് കോഴികളേ നമ്മള് നല്ല വൃത്തിക്ക് സൂക്ഷിച്ചു വളര്ത്തിക്കകഴിഞ്ഞാല് നമ്മള്ക്ക് ആ കോഴികളെ പരിശോധിക്കുമ്പോൾ അല്ലേൽ നോക്കുമ്പോളറിയാം ഇതിനെന്തെങ്കിലും കുഴപ്പം ഉണ്ടോ എന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതുങ്ങള് ഉള്ള ലക്ഷണങ്ങള് കണ്ടു കഴിഞ്ഞാലറിയാൻ പറ്റും അപ്പോള് അതിന് കറക്ട് സമയത്ത് മരുന്ന് വാക്സിനേഷൻ ഇവയൊക്കെ കൊടുക്കുക ഇപ്പോഴുണ്ടാകുന്ന ഒരു പ്രശ്നമെന്നു പറഞ്ഞാല് ഈ പക്ഷിപ്പനി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോള് ഗവൺമെൻറ്റ് തലത്തില് മുഴുവനായിട്ടും അതുങ്ങളെ കൊന്നു കളയുക ആണ് ചെയ്യുന്നത് നമ്മള് വീടുകളിലൊക്കെ വളർത്തുമ്പോഴത്തേനും അതിന് ഓരോ പ്രായത്തിലും ആവശ്യമായിട്ടുള്ള വാക്സിനേഷനും പിന്നെ എന്തെങ്കിലുമൊക്കെ ക്ഷീണമോ ലക്ഷണങ്ങളോ കാണുമ്പോള് അതനുസരിച്ച് ഡോക്ടേസിൻ്റെ കൊണ്ടുചെന്ന് അഡ്വൈസ് മേ എടുത്ത് മെഡിസിൻസ് ഒക്കെ കറക്ട് സമയത്ത് കൊടുത്ത് കൂടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക രോഗോ ലക്ഷണം കാണുന്നുണ്ടെങ്കില് നമ്മള് അതിനുള്ള പ്രികോഷൻസ് സേഫ്റ്റി മെഷേസ് ഒക്കെ ഉപയോഗിക്കുക അങ്ങനെ നമുക്ക് ഇതുങ്ങള്ക്ക് രോഗങ്ങളില്ലെന്നുള്ളത് നമുക്ക് ഉറപ്പാക്കാനായിട്ട് പറ്റും പിന്നെ പതിവായിട്ടുള്ള ആരോഗ്യ പരിശോധനകള് അസുഖമുണ്ടെങ്കില് ലക്ഷണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിന് പതിവായിട്ടുള്ള വാക്സിനേഷന് പരിശോധനകളൊക്കെ നടത്തുക പിന്നെ കൂടും പരിസരവുമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക ഭക്ഷണം അതിനു വൃത്തിയുള്ളത് കൊടുക്കുക ഇച്ചിരി കേടായതും ചീത്തയായതും പൂപ്പല് പിടിച്ചതും അങ്ങനെയൊന്നും കൊടുക്കാതെ വൃത്തിയുള്ള പാത്രങ്ങളിലും ധാരാളം ജലം ലഭ്യമാക്കുക അതൊക്കെ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാല് നമ്മള്ക്ക് സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അത് നമുക്കങ്ങനെ കോഴികള് കോഴി ആരോഗ്യമുള്ളതാണെന്ന് നമുക്ക് മനസിലാവും ക്ഷീണം ഉള്ളതാണോ എന്ന് നമുക്ക് ഡെയിലി ഒബ്സെർവഷനിലൂടെ ഒക്കെ മനസിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ആണ് പിന്നെ പിന്നെ രോഗബാധിത ഉണ്ടെങ്കിൽ നമ്മളതനുസരിച്ച് മെഷേസ് എടുക്കുക അതിൻ്റെ മൊട്ട ഉപയോഗിക്ക ഇറച്ചി ഒക്കെ ഉപയോഗിക്കാതിരിക്കുക രോഗം ബാധിച്ച കോഴികളെ അവിടെ നിന്ന് നമ്മള് പെട്ടെന്നുതന്നെ നീക്കം ചെയ്ത് ബാക്കി ഉള്ളതിനെ സംരക്ഷിക്കുക അങ്ങനെ പല രീതികളില് നമുക്ക് കോഴിയുടെ ആരോഗ്യം ഉറപ്പു വരുത്താനായിട്ട് സാധിക്കുന്നതാണ്